കാസർഗോഡ് ജില്ലയിലെ അറിയപ്പെടുന്നത് പലരീതിയിലുള്ള ലാംഗ്വേജസ് ആന്ന് പലരീതിയില് ലാംഗ്വേജസ് എന്നു പറയുമ്പോള് കന്നഡ മലയാളം തുളു മറാഠി ഉറുദു മലയാളിയില് തന്നെ രണ്ടു രീതിയിൽ മലയാളങ്ങള് കാസര്ഗോഡിലുണ്ട് ഏകദേശം മഞ്ചേശ്വരം കഴിഞ്ഞാൽ മലയാളം പറഞ്ഞാൽ ചേഞ്ചസ് ഉണ്ടാകും കാസര്ഗോഡ് മലയാളം എന്നു പറഞ്ഞാൽ വേറെയാന്ന് മഞ്ചേശ്വരം കഴിഞ്ഞിട്ടുള്ള മലയാളമെന്നു പറഞ്ഞാൽ വേറെയാണ് അവർ മലയാളത്തിനു ഒപ്പരം ഒന്നിച്ചു കന്നഡയും മിക്സ് സംസാരിക്കും കാസര്ഗോഡ് ആണെങ്കിൽ കാസര്ഗോഡ് ആണെങ്കില് മലയാളം ചേഞ്ചസുണ്ട് അതായത് കണ്ണൂര് ഭാഗത്തും വേറെ ജില്ലയിലൊക്കെ നോക്കുമ്പോൾ കാസര്ഗോഡത്തെ മലയാളം ചേഞ്ചസ് ഉണ്ട് അതേപോലെ കാസർഗോഡിൽ കാസർഗോഡത്തെ മലയാളം തന്നെ രണ്ടു തരത്തിലുണ്ട് കാസര്ഗോഡ് കാസര്ഗോഡ് ഭാഗത്ത് തന്നെയായിട്ടുള്ള ജില്ലയിലെ ആയിട്ടുള്ള മലയാളം ഉണ്ട് അതേപോലെ കാസര്ഗോഡ് ഭാഗത്തെ മഞ്ചേശ്വരം കഴിഞ്ഞാൽ വേറെ ഒരു മലയാളം ഉണ്ട് പിന്നെ തുളുവെന്നു പറയുമ്പോഴേക്ക് കാസര്ഗോഡ് ഭാഗത്തെ എല്ലാ സ്ഥലത്തും തുളു ഉണ്ട് തുളുവിൽ തന്നെ രണ്ട് രീതിയിലുണ്ട് കാസർഗോഡ് തുളു വേറെയാന്ന് അതേപോലെ ഈ മഞ്ചേശ്വരം കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്കും തുളു വേറെയാണ് മഞ്ചേശ്വരം ഭാഗത്ത് തുളുവെന്നു പറയുമ്പോഴത്തേക്കും കർണാടക ഭാഗത്തെ പോലത്തെയൊരു തുളുവാണ് പിന്നെ കാസര്ഗോഡിൽ കന്നഡ കന്നഡ സംസാരിക്കുന്ന രീതിയിൽ രണ്ട് രണ്ട് തരത്തിലുണ്ട് കന്നഡ കാസർഗോഡ് ഭാഗത്തായിട്ട് കാസര്ഗോഡിൽ തന്നെ രണ്ട് രണ്ട് രീതിയിൽ കന്നഡയുണ്ട് കർണാടകത്തെ കന്നഡയും അതുപോലെ കാസർകോഡിലെ കന്നഡയും ചേഞ്ച്സാന്ന് കാസർകോഡത്തെ കന്നഡ എന്നു വെച്ചാൽ ശുദ്ധമായിട്ടുണ്ടാകും അതേപോലെ പെട്ടെന്നു തന്നെ പറഞ്ഞാൽ അറിയാന് പറ്റും കാസര്ഗോഡത്തെ കന്നഡ എന്നു വെച്ചാൽ പിന്നെ കാസര്ഗോഡ് ബോര്ഡര് ഭാഗത്ത് ആകുമ്പോഴേക്കും കുറച്ചു മാറ്റം ഉണ്ട് കന്നഡ പോലെ തന്നെ തുളും സംസാരിക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ക മലയാളത്തെപ്പറ്റി പറയാണെങ്കിൽ കാസർഗോഡത്തെ മലയാളം കുറച്ചു കൂടി അറിയാണെങ്കിൽ കുറച്ചുകൂടി പാടാന്നു കാസര്ഗോഡ്ക്കാര്ക്ക് തന്നെ പറഞ്ഞാലേ അറിയാന് പറ്റൂ അതായത് കാസര്ഗോഡ് അല്ലാതെ പുറത്തത്തെ ഒരാൾ കാസര്ഗോഡ് ഭാഷ ഭാഷയോട് ഒന്നിച്ചു മിണ്ടാന് നിന്നാൽ അറിയാന് കുറച്ചു പാടാണ് പറയുന്നതൊക്കെ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റും പക്ഷേ അത് എന്ത് അതിന്റെ മീനിങ്ങ് എന്താണെന്നോ പറഞ്ഞ വേര്ഡിന്റെ മീനിങ്ങ് എന്താണെന്നു അറിയാന് പറ്റില്ല കാസർഗോഡത്തെ ഭാഷ കുറച്ച് മനസ്സിലാക്കാന് കുറച്ച് പാടാണ് പറയാന് പറ്റും പക്ഷെ മനസ്സിലാക്കാന് കുറച്ച് പാടുണ്ട് കാസര്ഗോഡ് ഭാഷ കാസര്ഗോഡ് ഭാഷയിലിപ്പോൾ വേറെ ജില്ലയെ വ ജില്ലനെ വെച്ചു കമ്പയര് ചെയ്താൽ കാസര്ഗോഡത്തെ ഭാഷ കുറച്ചും കൂടി ചേഞ്ചസ്സാന്ന് നോര്മലി മലയാളം ഉണ്ടെന്നു പറയില്ല കാസര്ഗോഡ് ഭാഷ കാസര്ഗോഡ് ഭാഷയ്ക്ക് കാസര്ഗോഡ് ഭാഷയെ പോലെ തന്നെ സെയിം വേറൊരു ഭാഷയും ഇല്ല മലയാളം കണ്ണൂർ അങ്ങോട്ടൊക്കെ നോക്കിയാൽ കണ്ണൂരത്തെ ഭാഷ സെയിം വേറൊരു ജില്ലയിലും ഉണ്ട് നോര്മലി ആ ഒരു ആ ഒരു രീതിയിൽ തന്നെ പോകുന്നത് പിന്നെ വേറൊരു ജില്ലയിൽ കാസര്ഗോഡത്തെ പോലെ ഈ ഭാഷകൾ സംസാരിക്കുന്നത്തേത് ഇല്ല കാസര്ഗോഡിൽ മാത്രമേ ഏഴു ഭാഷകള് ഉള്ളൂ കാസര്ഗോഡിലിപ്പോൾ ഒരു ഒരു ഭാഗത്തായിട്ട് കന്നഡ തുളു മലയാളം എന്നൊക്കെ സംസാരിക്കും പിന്നെ കാസര്ഗോഡിലെ പ്രത്യേകത ആയിട്ട് ഒരു രീതിയിൽ സംസാരിക്കുന്ന ഭാഷ എന്നു വെച്ചാൽ കൊങ്കണി കൊങ്കണി ഇന്ന രീതിയിൽ ഉള്ള ആള്ക്കാരൊക്കെ കൊങ്കണി സംസാരിക്കും അത് എല്ലാവർക്കും കൊങ്കണി സംസാരിക്കണം എന്നില്ല കന്നഡ എന്നു വെച്ചാൽ നോർമലി ഇപ്പോഴും മലയാളം മിണ്ടുന്ന ആൾക്ക് കന്നട അറിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റും എന്താ പറഞ്ഞതെന്നെക്കെ അറിയാൻ പറ്റും പിന്നെ ഈ കൊങ്കണി ഉറുദുവെന്നു പറയുന്ന സംഭവം ഒക്കെ ആ റിലിജിയനില് പെട്ട ആള്ക്കാര്ക്കെ ആ ഒരു ആ ഒരു കൊങ്കണി ഉറുദു കൊങ്കണി ഉറുദു ഒക്കെ സംസാരിക്കാൻ പറ്റു നോർമലി നമുക്ക് അറിയാൻ പറ്റില്ല അവരെന്താ പറയുന്നത് അവർ സംസാരിക്കുന്നത് ഒക്കെ അവർ അവരുടെ ഉള്ളിൽ അതായത് അവരുടെ കാസ്റ്റിലുട്ട കാസ്റ്റിലുള്ള കാസർഗോഡ് ഭാഗത്തുള്ള ആൾക്കാർക്ക് ആ ഒരു സെയിം കാസ്റ്റില് ഉള്ള ആൾക്കാർക്ക് ഉറുദു കൊങ്കണി ഒക്കെ സംസാരിക്കുവാനും അറിയാനും പറ്റൂ പിന്നെ കാസർഗോഡിൽ ഇത്രയൊക്കെ രീതിയിൽ വെറൈറ്റി ഓഫ് ലാംഗ്വേജസ് കാസർഗോഡിൽ ഉണ്ട് കാസർഗോഡത്തെ മലയാളം പിന്നെ കന്നഡ തുളു എന്നിവയൊക്കെ നോർമലി കാസർഗോഡിൽ അറിയാൻ പറ്റും പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഉറുദു എന്നുള്ള സംഭവങ്ങളൊക്കെ ഒരു ഒരു രീതിയിൽ അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ഭാഷ ഉണ്ടാകും കാസർഗോഡിലെ തന്നെ കന്നഡ മലയാളം തുളു എന്നു പറയുന്നത് കാസർഗോഡിലെ എല്ലാ സ്ഥലത്തെ ആൾക്കാരുണ്ട് അതായത് ഈ ഭാഷകളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഈ ഉറുദു പിന്നെ കൊങ്കണി എന്നുള്ളത് ഇന്ന ആ പെട്ട ആൾക്കാർക്ക് അത് ആ ലാംഗ്വേജ് അറിയത്തുള്ളൂ പിന്നെ ആ ലാംഗ്വേജിന്റെ മീനിങ്ങും അവര്ക്കേ അറിയത്തുള്ളൂ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നോർമലി ഒരു മലയാളം മിണ്ടുന്ന ആൾക്ക് കാസർഗോഡ് മലയാളം എന്ന് കാസർഗോഡിൽ കാസർഗോഡിൽ ഏതു തരത്തിലുള്ള ലാംഗ്വേജ് അത് അറിയുന്നത് കാസർഗോഡ് കാസർഗോഡിൽ മാത്രമേ ആ ഒരു പ്രത്യേകതയുള്ളൂ ഏതു ജില്ലയിൽ ഏത് രീതിയിലുള്ള ലാംഗ്വേജുകൾ സംസാരിക്കുന്നത് പിന്നെ കാസർഗോഡിലെ കാസർഗോഡിനെ പറ്റിയുള്ള ചേഞ്ച്സ് അത് തന്നെയാന്ന് വേറെ ഒന്നുമല്ല